പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ചാണ് എഴുതാനാണെനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ ഒരിതിൽ കാലം മാറിയപ്പോഴത്തേക്കുമെല്ലാം മാറി ഫോണൊക്കെ കൈയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും എനിക്കുമാ പേനയോടും പേപ്പറിനോടൊക്കെയുള്ള ആ ഒരിഷ്ടം മാറിയിട്ട് ഇപ്പം ടൈപ്പിങ്ങിനോടൊക്കെയായി ഇപ്പം എല്ലാവരുടെയും അവസ്ഥ ഇതു തന്നെയാണ് എല്ലാവർക്കും ഇപ്പം സമയം ലാഭിക്കാൻ ഇപ്പം പേ ടൈപ്പിങ്ങെന്നു പറഞ്ഞാൽ ഭയങ്കര എഫേട്ട്ലെസ്സാണ് കൈയിപ്പോൾ ഒര വഴങ്ങിവഴങ്ങി ഇപ്പം നമ്മുടെ മനസ്സിൽ കാണുന്നതിനു മുൻപുതന്നെ എന്താ വേണ്ടതെന്നു വെച്ചാൽ അതു ടൈപ്പായി വരുന്നുണ്ടെന്നാണ് എനിക്കു തോന്നുന്നത് അപ്പം എന്തുവെ ചെയ്യണതെന്നു വെച്ചാൽ അതങ്ങു പെ എഴുത്തെന്നു പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങോട്ടിരുന്നു കഴിയുമ്പോൾ നമുക്കു കിട്ടിയില്ല എഴുതാൻ വേണ്ടിയിട്ട് ഈയൊരു സമയത്തു പക്ഷെ എനിക്ക് അതിനോടാണിഷ്ടം അത് എഴുത്ത് ഒരു നൊസ്റ്റാൾജിയയാണ് പേനയും പേപ്പറും ഉപയോഗിച്ച് ആ ഒരു സ്റ്റൈലിലങ്ങ് എഴുതുക ഒരു വൃത്തിക്ക് എഴുതുക ബുക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എഴുതാനുള്ള ഭയങ്കര കുഞ്ഞിലേ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഫസ്റ്റ് പേജ് അസ്സലായിട്ടെഴുതാൻ വേണ്ടിയായിരുന്നു പേനയെഴുതും പേനകൊണ്ടു വര പേന കൊണ്ടെഴുതി പേപ്പറു കൊണ്ട് പേപ്പറിൽ എഴുതിയിട്ട് സ്കയിലും കൊണ്ട് വരക്കുക പെൻസിലൊക്കെ ഉപയോഗിച്ചു വരക്കുക ഡബിൾ ലൈൻ സിങ്കിൾ ലൈനൊക്കെ ഉപയോഗിച്ചാണ് തട്ടിവരക്കുമായിരുന്നു ഇപ്പം അതിനോടൊന്നുമൊരു താത്പ പേപ്പറൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപയോഗമില്ലാതെ വലിച്ചെറിയും ഇപ്പം എഴുത്തിനോടൊന്നും താത്പര്യമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഒരൂ ഒരു തോന്നലു വരണം അതിനോടൊരു തോന്നൽ വരുമ്പം മാത്രമെ ഇപ്പം ഞാൻ പേനയും പേപ്പറൊക്കെ എടുക്കാറുള്ളു അല്ലെങ്കിൽ ടൈപ്പിങ്ങൊക്കെത്തന്നെയാണ് എല്ലാവർക്കും അതുതന്നെയാണ് എല്ലാവരും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഈസി അതിലേക്കാണ് ഇപ്പം എഴുത്തിന്റെ കാര്യം തന്നല്ല മറ്റെന്തുകാര്യത്തിനാണെങ്കിലും അതിലേക്കു തന്നെയാണ് പോകുന്നത്